ലഖു ഭക്ഷണം നോക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സാധനം ഉണ്ട് ഇപ്പം എണ്ണക്കടികൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പം പരിപ്പുവട ഉഴുന്നുവട പിന്നെ ബോണ്ടാ പിന്നെന്താണ് പറയുക സുഗിയൻ അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മൾ ഇപ്പം സാധാരണ നാട്ടും പുറത്ത് ഈ അവൽ നനച്ചത് അങ്ങനത്തെ സാധങ്ങളുണ്ടാക്കും പിന്നെ ഉണ്ണിയപ്പം അത് നമുക്ക് ലഘു ഭക്ഷണത്തിൽ കൂട്ടമല്ലോ പിന്നെ നമുക്ക് നോക്കുകയാണെന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക

പെട്ടെന്ന് ഇപ്പോൾ നമക്ക് ഒരാൾ കേറി വന്നാൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഈ പാക് കാച്ചിയിട്ട് ഉള്ള പരിപാടി ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഐറ്റംസ് അങ്ങനക്കെയാണ് ഞാൻ ഉണ്ടാക്കാറ് പൊതുവെ അതിൽ അതിൽ വെറൈറ്റി ആയിട്ടിപ്പോൾ ടേസ്റ്റിൻ്റെ വ്യത്യാസം വരാതെ ചിലപ്പോൾ അതിൽ ചുക്ക് അതുപോലെ എന്താ പറയുക ഏലയ്ക്ക അങ്ങനത്തെ സാധനങ്ങൾ ഗ്രാമ്പു പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊടിച്ച് അത്യാവശ്യം നല്ല സ്മെല്ലും ഫ്ളേവറും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി കെമിക്കലൊന്നും ഇല്ലാതെ എല്ലാം ശുദ്ധമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാനാണ് ഞാൻ മാക്സിമം നോക്കാറ്